വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത് എന്താണെന്ന് വച്ചാൽ ഉത്സവത്തിനാണ് ഉത്സവത്തിനെന്ന് പറയുമ്പോൾ എല്ലാവരും വരും അതിപ്പോൾ റിലേറ്റീവ്സാണെങ്കിലും റിലേറ്റീവ്സ് ബന്ധുക്കാരെല്ലാവരും ഉണ്ടാവും ആ അമ്മേന്റെ റിലേറ്റീവ് ബന്ധക്കാർ അതുപോലെ അച്ഛന്റെ ബന്ധക്കാർ അതേപോലെ എല്ലാവരും അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചു വരും അതുപോലെ ഉത്സവമാണെങ്കിലും പള്ളിനേർച്ചക്കും ഇതേപോലെയാണ് ഉത്സവം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന ഉത്സവമാണ് രണ്ട് മൂന്നു ദിവസം ഉണ്ടാവും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ തലേന്നേ ഉണ്ടാവും ഗാനമേളയുണ്ടാവും ഒരു ദിവസം നാടൻ പാട്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഗാനമേളയായിരിക്കും അതുകഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഉത്സവം ഉത്സവമെന്ന് പറഞ്ഞാൽ എല്ലാ ദേശക്കാരുടെയും ഉത്സവമായിരിക്കും അപ്പോൾ എല്ലാവിടുന്നും പരിപാടികൾ പോകുന്നുണ്ടാവും ശിങ്കാരി മേളം അതുപോലെ തന്നെ മെയ്യാണ്ടി മേളം ഡോൾ ഇവയെല്ലാം ഉണ്ടാവും ഇപ്പോൾ വലിയൊരു പരിപാടിയാണ് അപ്പോൾ ഇത് കാണാനെല്ലാവരും വരാറുണ്ട് ആനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാ ബന്ധക്കാരും വരും ബന്ധക്കാരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കും അതൊരു ഒരു അപ്പോൾ ഒരു ഉള്ള ഒരു നിമിഷത്തെ ഒരു എന്റെർടൈൻ ചെയ്യാൻ പറ്റിയൊരു സമയവും കൂടിയാണത് എല്ലാവരേയും ആ ഒരു ദിവസമായിരിക്കും നേരിൽ കാണുക അതും എല്ലാവരും ഉണ്ടാവും അതേപോലെ ഫ്രണ്ട്സുണ്ടാകും എല്ലാവരും ഒരുമിച്ചിരിക്കും എല്ലാവരും ഒരുമിച്ച് കൂടി ഫുഡ് ഉണ്ടാക്കുവാനുള്ള തിരക്കിലായിരിക്കും ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ എല്ലാവരും വീട്ടിൽ അടുക്കള പണിയിലായിരിക്കും അതേപോലെ പുരുഷന്മാരാണെങ്കിൽ എല്ലാവരും കൂടി ചിലപ്പോൾ വെള്ളമടിക്കും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള വെള്ളമടിയും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിരിക്കും അതേപോലെ ഉത്സവങ്ങൾ കാണാൻ പോകും അതുകഴിഞ്ഞ് വന്ന് എല്ലാരും കൂടിയിരുന്ന് ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുക പറഞ്ഞാൽ അപ്പോൾ ബിരിയാണിയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇറച്ചിയും ചോറുമായിരിക്കും അതെല്ലാവരും കൂടിയിരുന്ന് വട്ടത്തിലിരുന്ന് കഴിക്കുക അതൊക്കെ തന്നെ വലിയ ഒരു എന്റെർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് അപ്പോൾ ഈ കൂട്ടായ്മയാണ് മറക്കാൻ പറ്റാത്ത ഒരു അതേപോലെ സന്തോഷങ്ങൾ തരുന്ന ഒരു കൂട്ടായ്മയെന്ന് പറയുന്നത്